എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് പറയുന്നത് ഇതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഓണവും വിഷുവും തന്നെയാണ് കാരണം അതൊരു പ്രത്യേക ഓളം തന്നെയായിരുന്നു കാരണം പൂക്കൾ പറിക്കാനും അതുപോലെ തന്നെ തൊടിയിലും പാടത്തും ഒക്കെ നടന്ന് പൂവ് ശേഖരിക്കാൻ ഏറ്റവും ഞങ്ങൾ കൂട്ടുകാരായിട്ട് കൂടുന്ന ഒരു സമയം കാരണം വെക്കേഷൻ സമയമാണ് അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോവുക കസിൻസും ആയിട്ട് പുറത്ത് പോവുക അതൊക്കെ തന്നെ ഒരു ആഘോഷം തന്നെയായിരുന്നു അതുപോലെ തന്നെ വിഷുവിനായാലും ഞങ്ങൾ തൊടിയിൽ നടന്ന് കശുമാങ്ങ അങ്ങനെ ഉള്ളത് ശേഖരിക്കുക കൂട്ടുകാരൊക്കെ കൂടി എന്നിട്ട് അത് വിറ്റ് കിട്ടുന്ന കാശു കൊണ്ട് പടക്കം വാങ്ങിക്കുക അതൊക്കെ ഒരു പ്രത്യേക സ്മരണകൾ തന്നെയാണ് അത് എന്താണെന്ന് അറിയില്ല ചെറുപ്പത്തിലേ ഞങ്ങൾക്ക് ഞാങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ലൂടെ ഇത് പോലെ തന്നെ സമ്പാദിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാനും പാരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്താനും ഒക്കെ ഞങ്ങൾക്ക് കശുമാങ്ങ വിറ്റ കാശ് ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഒരു നല്ല ഒരു പ്രവർത്തി തന്നെയാണ് അതുപോലെ തന്നെ വിഷു എന്ന് പറയുന്നതായാലും ഓണമെന്ന് പറയുന്നതായാലും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്